ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാന്നൂറ്റി അമ്പത്തി ആറ് എട്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴ് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആറ് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട്